ഫ്ളിപ്പ്കാർട്ട് ഡെലിവറി കമ്പനി ആണോ ഞാൻ പിന്നെ ഒരു അഞ്ചാറു ദിവസം മുന്നേ ഒരു ഗ്ലാസ് അതായത് ഫോണിന്റെ ഗ്ലാസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ ആ എനിക്കിന്നാണ് ആ പ്രൊഡക്റ്റ് കിട്ടിയത് അതെ അപ്പം ഇന്നിപ്പോൾ പ്രൊഡക്റ്റ് കിട്ടിയേ ഉള്ളൂ ഞാനത് ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ ഓപ്പൺ ചെയ്തപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു പാക്കേജിങ്ങ് ആണ് നിങ്ങൾ ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് ആ സാധനം നല്ല രീതിയിൽ കിട്ടിയില്ല അത് പൊട്ടി അതായത് പൊട്ടി ചില്ല് ഇങ്ങനെ പൊടി പൊടി ആയിട്ട് നമുക്ക് കയ്യിൽ തന്നെ മുറിയുന്ന ഒരു പാകത്തിനാണ് നമുക്കത് കിട്ടിയത് അപ്പം അത് വളരെ മോശമാണ് അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രയും ആഗ്രഹിച് മേടിച്ച സാധനമാണ് അപ്പോൾ ആഗ്രഹിച്ചു മേടിച്ചതല്ലെങ്കിലും നമ്മൾ പാക്കേജിങ്ങ് റെഡി ആയിട്ടുണ്ടെങ്കിൽ തന്നെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു അതായത് കാർബോഡിന്റെ ഒരു ഇത് പിന്നെ അതിന്റെ ഉള്ളിൽ ഗ്ലാസ് ഇങ്ങനെ വെറുതെ ഇട്ടേക്കുന്നു നമ്മളിപ്പോൾ ഫോണിൽ ഉപയോഗിക്കാൻ വേണ്ടിയല്ലേ അപ്പോൾ അതിൽ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫോണിനും കൂടെ ഒരു ഡാമേജ് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നിങ്ങൾ അത് തരുന്നുണ്ടെങ്കിൽ ഇനിയിപ്പം നിങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു കവറിൽ അതായത് ആ ഗ്ലാസ് ആ ഒരു കവറിൽ ആക്കിയിട്ട് വേണം നിങ്ങൾ ബോക്സിൽ ഇടാൻ അല്ലാണ്ട് നേരിട്ട് ബോക്സിൽ കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ കാര്യമില്ല അതുകൊണ്ട് തന്നെ അത് മുഴുവൻ പൊട്ടി നാശമായി അപ്പോൾ എനിക്കെന്തായാലും റീഫണ്ട് വേണം ഇന്ന് ഞാൻ ഇത് എന്തായാലും റിട്ടേൺ അയയ്ക്കാൻ പോകുവാണ് ആ അതെ അതെ ഓക്കേ ഓക്കേ